നമ്മൾ കേരളീയരുടെ മാതൃഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരും മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് ഇതിലിപ്പം കൺ കാസർഗോഡ് തിരുവനന്തപുരം ഇവർ പ്രത്യേക രീതിയിലാണ് നമ്മുടെ മലയാള സ്ലാങ് ഉപയോഗിക്കുന്നത് അത് നീട്ടും കുറുക്കലും അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് അപ്പം ഓരോ ഓരോ അതായത് ഓരോ ജില്ലക്കാരും മലയാളം എടുക്കുമ്പോഴത്തേക്ക് അവരുടെ നാടിന് അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് മലയാളം സംസാരിക്കുന്നത് അപ്പം അതിലെ ഇച്ചിരി നീട്ടലും കുറുക്കലും ഒക്കെ കാണും എന്നാൽ തന്നെയും മലയാളത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഏത് സ്ഥലത്ത് പോയാലും അവിടെ മലയാളികൾ ചുരുക്കും മലയാളികൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ല നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഭാഷയെന്ന് പറയുന്നത് മലയാളം തന്നെയാണ് അതിപ്പം എഴുത്തായാലും വായനയായാലും ജോലി ബന്ധപ്പെട്ടിട്ടായാലും ഒക്കെ നമുക്ക് മലയാളത്തിൽ സംസാരിക്കുമ്പം ഒരു പ്രത്യേക ഫീൽ ആണ് കിട്ടുന്നത് അത് മലയാളം നമുക്ക് കോൺഫിഡനറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഒരു ഫാഷ കൂടിയാണ് നമ്മുടെ മാതൃഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് പിന്നെ വരുന്നത് നമ്മൾ പ പഠനത്തിൽ പഠനത്തിൽ ഇപ്പം കൂടുതലും നമ്മൾ ഇംഗ്ലീഷ് അതിൽ തന്നെ പഠിച്ച് വരുന്നെങ്കിലും അതിൽ മലയാളത്തിലൊരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് അത് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയഎടുക്കാൻ പറ്റും അങ്ങനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് മലയാളം അതുപോലെ തന്നെ മലയാളികൾ എവിടെ ചെന്നാലും നമുക്കൊരു മുൻ നിരയിൽ ഒരു സ്ഥാനം കൂടി ഉള്ളതാണ് നമ്മുടെ മലയാള ഭാഷയ്ക്ക് സിനിമയിപ്പം സിനിമാ രംഗത്തായാലും മൊത്തത്തിൽ ബേസ് ആയിട്ട് എങ്ങനെ നോക്കിയാലും മലയാളത്തിന് ഒരു മുൻതൂക്കം ഉള്ള ഒരു ഭാഷ കൂടിയാണ് മലയാളം അതുപോലെ ഗ്രാമഭാഷ അതുപോലെ ഗ്രാമ ഭാഷായെന്നും സംസ്ഥാന ഭാഷ അങ്ങനെ നമ്മൾ വേർതിരിച്ച് കണ്ടാലും അതിൽ മലയാളം മലയാളം തന്നെയാണ് അതുപോലെ തന്നെ എഴുത്തും വായന എല്ലാം ഒരേപോലെ തന്നെയാണ് അവരുടെ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ വെച്ചിട്ട് ആ സ്ലാങ്ങിന് വ്യത്യാസം വരുന്നതല്ലാതെ വേറൊരു മാറ്റവും മലയാള ഭാഷയ്ക്ക് വരുന്നില്ല വേറെ വലിയ തരത്തിലുള്ള വ്യത്യാസങ്ങളും വരുന്നില്ല മലയാളം മലയാളം തന്നെയാണ് പിന്നെ മലയാള ഭാഷകളെക്കുറിച്ചുള്ള പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് വായിക്കാനും ഒക്കെ കൂടുതൽ ഇഷ്ടമുള്ളൊരു ഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് മലയാളം മലയാളം കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ഏതൊരു ഭാഷയും നമുക്ക് മുൻനിരയിൽ എടുക്കാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പോയാലും ഒക്കെ അവിടൊരു മലയാളി നമ്മൾ കണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണ് അയ്യോ ഇവിടൊരു മലയാളി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്താം എന്നൊക്കെ നമുക്കൊരു ആശ്വാസം കൂടിയാണ് ഒരു ഈ ഒരു മലയാള ഭാഷ പിന്നെ എല്ലാവർക്കും ഫ്ലുവൻറ്റ് ആയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നവരാരും തന്നെ ഇല്ല അതുകൊണ്ട് മലയാളമാണ് എല്ലാവർക്കും ബേസ് ആയിട്ട് അറിയാവുന്ന ഒരു ഭാഷ അതുകൊണ്ട് നമ്മുടെ മലയാള ഭാഷ വലിയ വ്യത്യാസം ഉള്ള രീതിയിലൊന്നും ഉള്ളതല്ല അക്ഷരങ്ങളെല്ലാം ഒന്നേപോലെ തന്നെയാണ്